ഞാന് ഒരു സ്റ്റൗ വാങ്ങി പക്ഷെ ആ സ്റ്റൗ എന്റെ വീട്ടിൽ കൊണ്ടു വന്നു അതു കത്തിക്കാന് ശ്രമിച്ചപ്പോൾ അതു ശരിയാകുന്നില്ല അതിന് എന്തൊക്കെയോ കപ്ലയിൻറ്റുകളുണ്ട് മാക്സിമം ഞാൻ അത് ന് നോക്കി അതിൽ പറ്റുമോ പാഴ്സലിൽ എന്തെങ്കിലും കുഴപ്പമാണോ നോക്കി പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയെങ്കിലും അതെനിക്കു ഉപയോഗിക്കാന് പറ്റുന്നില്ല അതിന്റെ പാർട്ട്സ് മാറ്റിയാൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് ഉപകാരം ആണ് ഇല്ലെങ്കിൽ അത് കൊടുത്തിട്ട് വേറെ പുതിയൊരു സ്റ്റൗ വാങ്ങാൻ പറ്റുമെങ്കിൽ അത് വാങ്ങാനാണ് വിചാരിക്കുന്നത് ഇതിന് എന്തെങ്കിലും കംപ്ലെയ്ൻ്റ് തീര്ത്തു തരാൻ കഴിയുമെങ്കില് അതു നല്ലതാണ് എങ്കിൽ പിന്നെ പുതിയത് വാങ്ങേണ്ട കുറേ അധികം നേരം നോക്കി നോക്കിയിട്ടും അതിന് തീ കത്തുമ്പം അതിനൊരു പ്രത്യേക ശബ്ദവും ആ കത്തി നല്ല നല്ല നല്ല രീതിയിൽ കത്തി വരുന്നില്ല അപ്പോൾ അതിന്റെ ആ ഇതു മാറ്റി പുതിയൊരു സ്റ്റൗ ആകുമ്പോഴത്തേക്കും പേടി ഒന്നാമത് പേടിയാണല്ലോ സ്റ്റൗവിന്റെ കാര്യത്തിൽ അത് കത്തി എന്തെങ്കിലും പ്രശ്നാമോ പൊട്ടിത്തെറിക്കുകയോ ആ പോ എന്ന് അങ്ങനെയൊന്നും അറിയാൻ അത് അങ്ങനെ ഉള്ള ഭയം ഉള്ളിലുള്ളതു കൊണ്ട് ഇതിന്നു മെക്കാനിക്കല് ആയിട്ടൊന്നും ചെയ്യാനും എനിക്കറിയില്ല അപ്പം പിന്നെ വേറെ മാറ്റി വാങ്ങുകയേ നിവര്ത്തി ഉള്ളൂ അപ്പം വേറെ കിട്ടണമെങ്കിൽ അത് ഉപകാരമാണ് ഇത് വില ഇതിനു തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മെയിൻറ്റന്സ് ചെയ്ത് അത് തന്നെ തിരികെ തന്നാലും പ്രശ്നമില്ല പക്ഷെ എന്തായാലും എനിക്കത് ഉപയോഗിക്കാൻ പേടി തോന്നിയതു കൊണ്ട് റിട്ടേൺ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണത് അത് തിരിച്ചെടുത്തിട്ട് ഒ ഒ ഒ ഒരു പുതിയ സ്റ്റൗ തരികയോ അല്ലെങ്കിൽ ഇതിനെ മെയിൻറ്റനന്സ് ചെയ്യാന് എനിക്കറിയില്ലല്ലോ നിങ്ങൾ അത് മെയിൻറ്റനന്സ് ചെയ്ത് തരികയോ ചെയ്യണമെങ്കിൽ അതാണ് എ എനിക്ക് ഏറ്റവും കൂടുതൽ താത്പര്യം